ഹലോ ആ ഇത് ഇത് ഹോട്ടല് അര്ക്കെടി ആന്നോ ആ പിന്നെ ഫുഡ് ഓഡർ ചെയ്യാനാണെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്കാണെ എന്നായൊക്കെയുണ്ട് അവിടെ ഫുഡ്

ചോറിനെന്നാ ഒക്കെയാണ് കറി ആ ഞങ്ങൾ എത്രയാണ് എത്രയാണ് ആ എത്രയാണ് ഫുഡിന്റെ ചാര്ജ് ഊണ് ഫ്രൈ ഉള്പ്പെടെ ആ പിന്നെ കപ്പയ്ക്കോ ഫ്രൈഡ് റൈസോ അത് ഓക്കെ ഞാൻ ഒരു ആ ഉച്ചയ്ക്ക് ഒരു അഞ്ചാറ് ഒരു പത്ത് പേര്ക്കുള്ള ഫുഡ് വേണേ ആ വരും ഞങ്ങൾ വരും വരും വരും വരും ആ അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ആ എല്ലാം നല്ലതായിട്ട് ഞങ്ങൾക്ക് ബിരിയാണി മതിയേ പത്ത് ബിരിയാണി പത്ത് ബിരിയാണി പത്തു ബിരിയാണി ഞങ്ങൾക്ക് മട്ടന് ബിരിയാണി മതി ഓക്കെ പിന്നെ ഐസ് ക്രീം ആ വേറൊന്നും വേണ്ട ജ്യൂസ് ആ വരുമ്പോഴത്തേക്കൊരു ജ്യൂസും ആ ഫ്രഷ് ജ്യൂസ് വേണം ഫ്രഷ് ജ്യൂസ് വേണം ആപ്പിള് മതി ആപ്പിള് മതി ആ ആ ഓക്കെ ഓക്കെ ആ ആ അതേ ഞാൻ ഈ ആ ഫ്രഷ് ജ്യൂസ് ആപ്പിള് പിന്നെ ഐസ് ക്രീം ആ അതൊക്കെ മതി ഇത്രയും മതി ആ ഓക്കെ ഞങ്ങൾ എപ്പം വരണം ഞങ്ങൾ എത്രമണിക്കാണ് നിങ്ങളുടെ ഫുഡ് ആവുന്നത് ആ ഓക്കെ ഞങ്ങൾ ഒരു മണിയാവുമ്പോൾ വരും ആ ആ ആ വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് കേട്ടോ